ഞാനെന്റെ കുടുംബത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് കാരണം എവിടെ നിന്ന് ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അവസാനം നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കുടുംബം അതായത് ബന്ധുക്കളെ അല്ല ഞാൻ പറയുന്നത് സ്വന്തം ഉണ്ടാകുമല്ലോ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അവസാനം നിമിഷം വരെ ബന്ധുക്കാർ നമ്മുടെ അടുത്ത് ക്യാഷ് ഒക്കെയുള്ളപ്പോൾ അവർ ഉണ്ടാകും പക്ഷേ നമുക്കൊരു വിഷമം നമ്മുടെ ദുഃഖം വരുമ്പം എല്ലാരും നിന്നുന്ന് വരില്ല ആ സമയത്ത് നമുക്ക് എന്തു പറ്റിയാലും നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാവും നമ്മുടെ കൂടെ അവസാനം നിമിഷം വരെ നമ്മളെ ചേർത്തുപിടിച്ച് നമ്മുടെ നമുക്ക് എന്തുണ്ടെങ്കിലും അവർ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല